ഹലോ ഇത് സ്വിഗ്ഗി കസ്റ്റമർ കെയറല്ലേ ഞാൻ ഒരു കസ്റ്റമറാണ് ജെസ്ന എന്നാണ് പേര് ഞാൻ അവിടെ നിന്ന് സ്ഥിരം ഫുഡ് ഓർഡർ ചെയ്യുന്നൊരു കസ്റ്റമറാണ് ഞാൻ വീട്ടിൽ ഒരു മൂന്നു നാല് പ്രാവശ്യമായിട്ടെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാറുണ്ട് പക്ഷെ എനിക്കിതുവരെയായിട്ടും അവിടുന്നൊരു ഡിസ്കൗണ്ടും കിട്ടിയിട്ടില്ല ഞാനിന്നും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം അവടെ ഡിസ്കൗണ്ടും ഓഫറൊക്കെ ധാരാളമുണ്ടെന്നുള്ളത് ഞാനിങ്ങനെ അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചതായിരുന്നു ഞാൻ വീട്ടിൽ വീട്ടിൽ മക്കൾക്കാണെങ്കിലും അതേപോലെ ആരെങ്കിലും ഗസ്റ്റ് വരികയൊക്കെ ആണെങ്കിൽ ഞാൻ സ്വിഗ്ഗിയിൽ നിന്നാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത് അപ്പം ഇത്രയായിട്ടും നമുക്ക് ഒരു ഓഫറോ നമുക്ക് ഡിസ്കൗണ്ടോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് അത് ഉണ്ടോയെന്നറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഫുഡൊക്കെ നല്ല ഫുഡാണ് പക്ഷേ എന്താ ഓഫർ നമ്മൾ വലിയ വലിയ ഫുഡാണ് നമ്മൾ ഓഡർ ചെയ്യുന്നത് ചെറുതും ഓഡർ ചെയ്യുന്നുണ്ട് വലുതും ഓഡർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നില്ല നമ്മുടെ ആ ഇതിൽ പറയുന്ന ആ അതേ റേയ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുവരെയായിട്ടും നമുക്ക് ചെറിയ തോതിൽ പോലും ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല അപ്പം ഡിസ്കൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്ന് ഫുഡ് ഓഡർ ചെയ്തിട്ടുണ്ട് അപ്പം അതിനു നമ്മ ഡിസ്കൗണ്ട് തരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞാൻ ഇത് വീട്ടിൽ ഗസ്റ്റ് വരികയാണെങ്കിൽ ഞാൻ പെട്ടെന്നു വിളിക്കുന്നത് അവർക്കാണ് സ്വിഗ്ഗിയിലേക്കാണ് വിളിക്കുന്നത് അപ്പം പെട്ടെന്ന് ഫുഡ് കിട്ടുന്നും ഉണ്ട് എല്ലാ ഓക്കെയാണ് പക്ഷേ എനിക്ക് ഡിസ്കൗണ്ട് ഇല്ല ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും എല്ലാവർക്കും ഞാൻ അവിടെ നിന്നു തന്നെയാണ് ഫുഡ് ഓഡർ ചെയ്തു കൊടുക്കുന്നത് അപ്പം ഞാൻ തന്നെയാണ് ഓഡർ ചെയ്യാറ് പക്ഷേ എന്തോ അവർക്കും ഇതുവരെയായിട്ട് ഞാൻ ചെയ്തു കൊടുത്തതിൽ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടിയിട്ടില്ല ഞാൻ അതേ റേയ്റ്റു തന്നെയാണ് തരുന്നത് അപ്പം ഞാൻ ഇന്നു വിളിച്ചതാണ് ഡിസ്കൗണ്ട് ഉണ്ടോയെന്നു അറിയാനാണ് അപ്പോൾ എനിക്ക് ഡിസ്കൗണ്ട് കിട്ടുമായിരിക്കും എന്നു കരുതുന്നു പിന്നെ ഇത് സ്ഥിരം കസ്റ്റമറാകുമ്പം നമ്മളങ്ങനെ കൊടുക്കേണ്ടതാണല്ലോ ഇന്നു ഞാൻ എന്നെങ്കിലും അല്ല ചെയ്യുന്നത് ഇത് ഒരു വീട്ടിൽ മൂന്നോ നാലോ പ്രാവശ്യം ഉണ്ടാകുമ്പം നമ്മളെന്തായാലും സ്ഥിരം കസ്റ്റമറാണ് അപ്പം ഞാൻ പിന്നെ ഞാൻ ഞാനറിയുന്ന എൻ്റെ റിലേറ്റീവ്സാണെങ്കിലും ഫ്രണ്ട്സാണെങ്കിലും അവർക്കൊക്കെ ഞാൻ ഇതു പറഞ്ഞ് അവരെക്കൊണ്ട് ഇവിടെ നിന്ന് വാങ്ങിപ്പിക്കുന്നുണ്ട് അപ്പം പിന്നെ എന്തായാലും ഡിസ്കൗണ്ട് വേണ്ടതാണ് അപ്പം കിട്ടുമായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങൾക്കു വിളിച്ചിട്ടുള്ളത്